നമ്മളുടെ സാമ്പത്തിക ഇടപാടുകൾ വളരെ ലഘൂകരിച്ചും ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് വിസാ കാർഡ് റുപിയെ കാർഡ് അങ്ങനത്തെ കാർഡുകളൊക്കെ നമ്മൾ ആ മനുഷ്യൻ്റെ സാമ്പത്തിക ഇടപാടുകൾ ഭയങ്കര എളുപ്പമാക്കാനാണ് ഇങ്ങനത്തെ കാർഡുകൾ അവർ ഇറക്കിയിരിക്കുന്നത് ഈ ഡെബിറ്റ് കാർഡ് എന്നത് നമ്മളുടെ അക്കൗണ്ടിലുള്ള പൈസ നമ്മളുടെ അക്കൗണ്ടിലുള്ള പണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബാങ്കിൽ നിന്നും ബാങ്കിൽ പോവാതെ തന്നെയും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും നമ്മൾ അക്കൗണ്ടിലുള്ള പൈസ എടുക്കാൻ സഹായിക്കുന്നതാണ് ഈ ഡെബിറ്റ് കാർഡ് എ ടി എം പോ ലെയുള്ള മെഷീനുകളിൽ മെഷീനുകളിൽ പോയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഡെബിറ്റ് കാർഡിൽ നിന്നും നമ്മളെ അക്കൗണ്ടിലുള്ള പൈസ എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്നത് നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചു സാധനങ്ങൾ വാങ്ങാനും അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ നടത്താനും സാധിക്കും എന്നിട്ട് മാസം അവസാനം ഈ ഡെബിറ്റ് കാർഡിലേക്ക് നമ്മൾ ചിലവഴിച്ച പൈസ നമ്മൾ അടയ്ക്കുകയാണ് ചെയ്യുക അത് വളരെ അധികം ഒരു ഉപകാരപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഏതൊരു പ്രത്യേക സാഹചര്യത്തിലും സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ അത് നടത്തിക്കൊണ്ട് വരാൻ വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഈ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് വിസാ കാർഡ് റൂപേ കാർഡ് എന്നീ കാർഡുകളൊക്കെ ഇത് മനുഷ്യൻ്റെ സാമ്പത്തിക ഇടപാടുകളെ ഭയങ്കരമായി സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ എ ടി എം മെഷിൻ അതുപോലെയുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും വളരെ അധികം എളുപ്പത്തിൽ നമ്മളെ സഹായിക്കുന്നു അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാനാണെങ്കിലും ഡെബിറ്റ് കാര്ഡ് വഴി നമുക്ക് സാധിക്കും എ ടി എം പോലെയുള്ള മെഷീനുകള് പോയി ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചു നമ്മുടെ കൈയിലുള്ള പൈസ അങ്ങോട്ട് ഇടാനും അക്കൗണ്ടിലേക്ക് ഇടാനും നമുക്ക അതുപോലെ തന്നെ നമ്മുടെ കൈയിലേക്ക് തിരിച്ചെടുക്കാനും ഇത് വളരെ അധികം ഉപകാരപ്രദമാണ് ബാങ്കുകൾ ഇനിയും ഇങ്ങനത്തെ കാര്ഡുകളും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇറക്കുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം നമുക്ക് വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇതേപോലെയുള്ള കാര്ഡുകൾ